ഹലോ ജിയോൻ്റെ ഓഫീസാണോ എൻ്റെ മൊബൈൽ ഡേറ്റ കണക്ഷനിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് റേഞ്ച് കിട്ടുന്നില്ല പല പ്രധ പ്രശ്നങ്ങൾ നേരിടുകയാണ് നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാന് ഒന്നില്ലെങ്കിൽ പിന്നെ സിമ്മ് മാറ്റും അല്ലെങ്കിൽ ഫോൺ മാറ്റും നിങ്ങളുടെ ഓപ്പറേറ്റിങ്ങ് സിസ്റ്റം വളരെ മോശമാണ് പിന്നെ നിലവിൽ ഇപ്പുള്ള ഫോണിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും നമുക്ക് ഫോൺൽ ഡേറ്റാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പം അതിന് അടിയന്തരമായി പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് മറ്റ് വോഡോഫോണോ അല്ലെങ്കിൽ എയർടെല്ലോ അല്ലെങ്കിൽ ബി എസ് എൻ എൽ പോലുള്ള കണക്ഷനെടുക്കേണ്ടി വരും അപ്പം അടിയന്തരമായി ഇടപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പരിഹാരം കണ്ടെത്തണം അല്ലെങ്കിൽ നമുക്ക് ഇത് ബന്ധപ്പെട്ട ഉഭഭോക്തൃ കോടതിയേ അറിയിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ അടിയന്തരമായി അതിൻ്റെ പ്രശ്നങ്ങൾ അന്വേഷിച്ചിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് വളരെ പെട്ടന്ന് തന്നെ അതിന് വേണ്ടീട്ട്ള്ള നടപടി എടുക്കണം ഇതിൻ്റെ നടപടി എത്രയും പെട്ടന്ന് തന്നെ എടുക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്